എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനുമാണ് ഞാൻ കല്യാണം കഴിച്ച വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷം ഒന്നുമില്ല അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാനമ്മയാണ് ഉള്ളത് പിന്നെ അച്ഛനാണുള്ളത് അച്ഛൻ ആ രണ്ടാനമ്മ പറയണത് മാത്രമേ കേൾക്കുകയുള്ളൂ നമ്മളോടൊന്നും അവരൊന്നും അധികം മിണ്ടുകയൊന്നുമില്ല അധികം എന്നല്ല മിണ്ടുകയേ ഇല്ല അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മോനും തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് ഇവിടെ അതായത് എനിക്ക് ഒരു നേരം അതായത് എൻ്റെ മുഖത്ത് ഒരു ചിരി വരണമെങ്കിൽ എനിക്ക് അവർ രണ്ടുപേരും വേണം പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും അതായത് ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻറെ അടുത്തു പോകുകയുള്ളു അതാകുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്വർഗ്ഗം എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും വലിയ സ്വർഗ്ഗം ഇപ്പോൾ നമ്മൾ വേറൊരു വീട്ടിൽ വന്നു താമസിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാകുക അപ്പോൾ എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും വലിയ സ്വർഗ്ഗം അവിടെയാകുമ്പോൾ എല്ലാവരും മിണ്ടി കളിച്ച് രസിച്ചാണ് ഞങ്ങൾ ജീവിക്കാറ് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തോ ഒറ്റപ്പെട്ട പോലെ തോന്നുക പക്ഷേ എൻ്റെ മോൻ ഉണ്ടായപ്പോൾ എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടില്ല എൻ്റെ ഭർത്താവ് എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ആണ് എൻ്റെ ഭർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അതായത് ഭർത്താവും കൂടെ ഇതേ അവസ്ഥയാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം പോയി പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഭർത്താവും എൻ്റെ മോനും എൻ്റെ അച്ഛനും അമ്മയും ആണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം